രാത്രിയിൽ ഞാൻ പക്ഷികളെ നിരീക്ഷിച്ചിട്ടുണ്ട് രാത്രിയിൽ പുറത്തിറങ്ങുക എന്നത് എൻ്റെ ഒരു പ്രധാന ഹോബിയാണ് കൂടെ ഇടക്കിടക്ക് ഞാൻ പല വിധത്തിലുള്ള പക്ഷികളെ കാണാറുണ്ട് പ്രധാനമായും ച്ചേ രാത്രികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വൈകുന്നേരങ്ങളിൽ ചേക്കേറുന്ന കാക്കകളെ മരങ്ങളുടെ മുകളിൽ നമുക്ക് സ കാണാൻ സാധിക്കും അതുപോലെ തന്നെ പേരകളിൽ പേര അങ്ങനെ മുതലായ മരങ്ങളിൽ നമുക്ക് വവ്വാലുകളുടെ സാന്നിധ്യം വളരെ അധികം കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ചില പക്ഷികൾ മൂങ്ങ മുതലായവ പക്ഷികൾ അതിൻ്റെ കണ്ണിൻ്റെ റിഫ്ലക്ഷൻ മൂലം വരുന്നതും പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ദൃഢമായ അതിൻ്റെ കണ്ണുകൾ മൂലം ബാക്കിയുള്ള പക്ഷികളിൽ നിന്ന് അതിനെ പെട്ടന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നു ഏത് ഇരുട്ടത്തും നമുക്ക് മൂങ്ങകളെ കാണാൻ സാധിക്കാറുണ്ട് കൃത്യമായി പറഞ്ഞാൽ രാത്രികളിൽ പക്ഷികളെ പകലിനെ അപേക്ഷിച്ച് പക്ഷികളെ കാണാൻ സാധിക്കുന്നത് വളരെ അധികം കുറവാണ് രാത്രികളിൽ പക്ഷികൾ അങ്ങനെ പുറത്ത് ഇറങ്ങാറില്ലല്ലോ